വ്യവസായസംഘടനകൾ സംഘടനകൾ വളരെ അധികം വികസിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുള്ളത് ഇന്ത്യയിലെ പുതു തലമുറക്ക് വ്യവസായത്തിലേക്ക് എങ്ങനെ ഇറങ്ങാമെന്ന കാര്യങ്ങൾ പലതും കാണിച്ചു തരുന്ന ഒരു അവസ്ഥയാണിന്ത്യയിലുള്ളത് ഇന്ത്യയെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരുപാട് പേർ പുറത്തേക്കു പോകുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ ഒരുപാട് ആളുകൾക്കുള്ള അവസരം ഇവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ് ഈ പുതിയ സംരംഭം തുടങ്ങാനായിട്ടു തന്നെ ഇന്ത്യ ഇന്ത്യ സർക്കാരും കേരളാ സർക്കാരും പല പല ആനുകൂല്യങ്ങൾ തരുന്നുണ്ട്

ഏഴ് തൊട്ട് എട്ടു ശതമാനം വരെ ഇമ്പ്രൂമെൻസ് എം എസ് എം ഇ എന്ന മേഖലയിലേക്ക് തരാനായിട്ട് ഇരിക്കുന്നുണ്ട് അതുപോലെ വളരെ അധികം സംഘ സംഘടിതമായൊരു കാലഘട്ടമായിരുന്നു കോവിഡ് കാലത്തുകൂടി എൻറ്റർപ്രണർഷിപ്പ് ഡെവലപ്പ്മെൻ്റ് എന്ന കാര്യത്തിലേക്ക് നമ്മുടെ കേരള സർക്കാർ ഫോക്കസ് ചെയ്യുന്നതായിട്ടു നമുക്ക് കാണാൻ സാധിച്ചു അതുപോലെ പല കാര്യങ്ങളിലും സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും വ്യക്തമായ ഇടപെടലുണ്ട് സംരംഭകരില്ലാതെ ഒരു രാജ്യത്തിൻ്റെ ജി ഡി പി വളരില്ല അപ്പോൾ സംരംഭകർ എല്ലായിടത്തും വേണമല്ലോ സംരംഭകരാണ് ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ഒരു എഴുപതു ശതമാനം പങ്കു വഹിക്കുന്നതെന്നെനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്നു വെച്ചാൽ സംരംഭകരില്ലാതെ പുതിയ പുതിയ ജോലി സാദ്ധ്യതകൾ വരില്ല ജോലി സാദ്ധ്യതകൾ വന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ജി ഡി പി എന്ന സാധനം നിലം പതിക്കും

ജോലി മേടിക്കാൻ ആൾ അതു പോലെ നിൽക്കുമ്പോൾ ജോലി കൊടുക്കാനാണ് ആൾ ഇല്ലാത്തത് എല്ലാവർക്കും ജോലി വേണം പക്ഷേ ജോലി കൊടുക്കാൻ ആളില്ല അതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒരു ജോലി ചെയ്യുക എന്നത് ഒരു ജോലി സംഘടിപ്പിക്കുന്നതിലും എളുപ്പമാണ് ഒരു ജോലി കൊടുക്കുന്നതാണ് ബുദ്ധിമുട്ട് ജോലി മേടിക്കുന്നത് എളുപ്പമാണ് ജോലി കൊടുക്കുന്ന കൊടുക്കാൻ ആളുണ്ടെങ്കിലാണ് മേടിക്കാൻ ആളുണ്ടാകുകയുള്ളൂ ഇല്ലെങ്കിൽ അവിടെ ജോലി ഇല്ലാത്തൊരവസ്ഥ വരും അൺഎംപ്ലോയ്മെൻറ്റ് എന്നു പറയുന്നത് കേരളത്തിലും കണ്ടു വരുന്നുണ്ട് കേരളത്തിൽ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ വർദ്ധനവ് കാരണം തന്നെയാണല്ലോ കേരളത്തിൽ നിന്ന് ആളുകൾ യൂ ക്കെയിലേക്കും കാനഡയിലേക്കും ലണ്ടനിലേക്കൊക്കെ പോകുന്നത് അതൊഴിവാക്കാനായിട്ടു ചെയ്യുക പറ്റുന്നതെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ആളുകൾക്ക് ഇവിടെ തന്നെ ജോലി കിട്ടാനുള്ള സാദ്ധ്യത ഉണ്ടാക്കുക എന്നതു മാത്രമാണ് ഇവിടെ ഉള്ളവർ ആളുകൾക്ക് ജോലി കിട്ടണമെങ്കിൽ ഇതു പോലെയുള്ള പുതിയ പുതിയ സംരംഭങ്ങൾ ഉണ്ടാകണം എൻട്രപ്രണർഷിപ്പ് ഡെവലപ്പ്മെൻ്റ് എന്ന കാര്യം കൃത്യമായ റിസർച്ച് ആൻഡ് ഡെവലപ്പ്മെൻറ്റിലൂടെ കൊണ്ടു വരേണ്ടതാണ് കൃത്യമായിട്ട് റിസർച്ച് ചെയ്തെയ്താൽ ഏതെല്ലാം ഭാഗത്ത് നമുക്ക് എൻട്രർപ്രണർഷിപ്പ് നമുക്ക് ക്രീയേറ്റ് ചെയ്യാം എന്നുള്ളത് കൃത്യമായിട്ട് അവലോകനം ചെയ്തു മുന്നോട്ടു വെക്കുകയാണെങ്കിൽ അതു വളരേയധികം നല്ലൊരു കാര്യമാണ് കാരണം ജോലി ഇല്ലാതെ ഇനിയുള്ള കാലത്ത് അല്ലെ ജോലി കൊടുക്കാതെ ഇനിയുള്ള കാലത്ത് ജീവിക്കാൻ പറ്റില്ല കാരണം ദിനം പ്രതിയുള്ള ഇൻഫ്ളേഷൻ കുടി വരുന്നു അതുപോലെ തന്നെ കടങ്ങൾ കൂടിവരുന്നു ദൂരേക്ക് കൂടുതൽ ആളുകൾ പുറം രാജ്യങ്ങളിലേക്കു സുഖസൗകര്യങ്ങൾ തേടി പോകുന്നു കേരളവും ഒരു കൊച്ചു യൂ കെ ആക്കാം വേണമെങ്കിൽ കാരണം ഭാവിയിൽ ഇതുപോലെ എംപ്ലോയ്മെൻറ്റ് ഓപ്പോർചുണിറ്റീസ് കൊടുത്തു കൊടുത്തു കൊടുത്തു കൊടുത്ത് ജി ഡി പി ഗ്രോ ചെയ്യുന്നു അതു കൂടി നമുക്ക് കൂടുതൽ ആളുകളെ ഈ സംരംഭഗം സംരംഭമെന്ന രീതിയിലേക്കു കൊണ്ടു വരാൻ സാധിക്കുന്നു ഇപ്പം നിലവിലുള്ള കേരളത്തിൻറ്റെ അവസ്ഥ എന്നു പറഞ്ഞാൽ കൂടുതൽ സംഭ്ര കൂടുതൽ ആളുകൾ ജോലി ചെയ്യാനുണ്ട് എന്നാൽ ജോലി കൊടുക്കാൻ ആളില്ല അങ്ങനെ ജോലി കൊടുക്കാൻ ആളുണ്ടാകുന്നൊരു സാഹചര്യത്തിൽ കേരളത്തിലെ ആളുകളും നിൽക്കും അതിന് കേരള സർക്കാരും കേന്ദ്രവും ക്യത്യമായി ഇടപെടൽ നടത്തണം